സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെട്ട പ്രധാന വിഷയം എന്ന് പറയുന്ന ഹിസ്റ്ററി ആയിരുന്നു അത് ഇഷ്ടപ്പെടാൻ കാരണം അത് പഠിപ്പിച്ചു കൊണ്ടിരുന്ന സാറായിരുന്നു സാറ് വളരെ നന്നായി തന്നെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു സാർ വ വളരെ സൗഹൃദപരമായിട്ട് ആയിരുന്നു കുട്ടികളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് സാറ് ക്ലാസ്സെടുക്കുന്ന രീതിയും വളരെ ഉത്സാഹകരവും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കൊണ്ടു വരുന്ന രീതിയിലുമാണ് ക്ലാസ്സ് എടുത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഹിസ്റ്ററി ക്ലാസിൽ ഇരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ പഴയ കാലത്തിൻ്റെതും പഴയ പഴയകാലത്തെ ചരിത്രങ്ങളും പഠിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഹിസ്റ്ററി ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ കാരണം അത് എടുത്തിരുന്ന സാറ് തന്നെ ആണ് സാർ എടുത്തിരുന്ന രീതി ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നാനുള്ള കാരണം